ഒരു മീറ്റിങ്ങിനു വേണ്ടിയിട്ട് വീഡിയോ കോൺഫറൻസ് ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇപ്പോൾ മുന്നേ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് അവിടെ കൂടുതലായിട്ട് നമ്മുടെ ഹെഡ് ഓഫീസുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേനും കൂടുതലായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് വീഡിയോ കോൺഫറൻസ് കോൾ തന്നെ ആയിരുന്നു പിന്നെ കൂടുതലായിട്ടും വീഡിയോ കോൺഫറൻസ് കോളുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ശരിക്കും കോവിഡ് നയൻറ്റീൻ വന്ന സമയത്തായിരുന്നു ആ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ വീട്ടിലിരുന്നാണ് ജോലി ചെയ്തു കൊണ്ടിരുന്നത് വർക്ക് ഫ്രം ഹോം ആയതു കൊണ്ട് കൂടുതലായിട്ടും വീട്ടിലിരുന്ന് ചെയ്യുന്നതു കൊണ്ട് കമ്പനിയിൽ നടക്കുന്ന ഏതു കുഞ്ഞ് കുഞ്ഞ് വീഡിയോ കുഞ്ഞ് കുഞ്ഞ് മീറ്റിംഗുകളായാൽ പോലും നമ്മൾ വീഡിയോ കോൺഫറൻസ് വഴിയിട്ടായിരുന്നു ചെയ്തു കൊണ്ടിരുന്നത് അതിലെനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഒന്നും തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല എന്നു വെച്ചു കഴിഞ്ഞാൽ വീഡിയോ കോൺഫറൻസുകളായാലും നമുക്ക് നിർബന്ധം പറയുന്നതല്ല അതൊക്കെ ഓരോ ഓരോരോ കാര്യങ്ങളായിരുന്നു കമ്പനികളിലെ കമ്പനി റൂൾസ് പോലെയായിരുന്നു പക്ഷെ എല്ലാ വീഡിയോക്കോ ഇതിനകത്തെ നം കൂടുതലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന സൂമീറ്റായിരുന്നു അപ്പോൾ സൂമീറ്റിൽ വന്നിട്ട് വീഡിയോ കോളിൽ വീഡിയോ കോൺഫറൻസിൽ വരുമ്പോഴത്തേന് വീഡിയോ ക്ലാരിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ഓഡിയോ ക്ലിയറൻസാണെങ്കിലും എല്ലാം തന്നെ പെർഫെക്റ്റ് തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിലൊരു ഇഷ്ടക്കേടായിട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് ഓഡിയോയിലായിരുന്നു ഓഡിയോ കോൺഫറൻസിലല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൺഫറൻസിൽ തന്നെ ഓഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒച്ചകളായിരുന്നു അതായത് നമ്മുടെ എന്താ പറയുക റെയിഞ്ച് ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഒരു ഒരു സൗണ്ട് എക്സ്ട്രാ കയറി വരാറുണ്ടായിരുന്നു അതാണ് നമുക്ക് ഓഡിയോയിൽ വന്നിട്ട് ജസ്റ്റ് ക്ലിയറല്ലാത്ത രീതിയിലൊരു പ്രശ്നം വന്നിട്ടോ അല്ലെങ്കിലിഷ്ടക്കേടായിട്ടോ അല്ലെങ്കിലെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഓടിയോടൊരു പ്രശ്നം മാത്രമായിരുന്നു അല്ലാതെ വീഡിയോ കോൺഫറൻസ് കോളിലങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതുപോലെതന്നെ പിന്നെ അല്ലാതെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ബോട്ടിം ആപ്പായിരുന്നു അത് വന്നിട്ട് എൻ്റെ കസിൻസൊക്കെ പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ബോട്ടിമെന്നു പറയുന്നൊരു കോൺഫറൻസ് കോൾ ആപ്പും ഉപയോഗിക്കുന്നതായിട്ടുണ്ടായിരുന്നു അതിലും വന്നിട്ട് റെയിഞ്ച് ഇഷ്യൂ വരുന്ന പ്രശ്നം മാത്രമല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഓഡിയോ കോളിലോ വീഡിയോ കോളിലോ എനിക്ക് തോന്നിയിട്ടില്ല ഓഡിയോ കോളിലാണെങ്കിലും ഇതുപോലെ റെയിഞ്ചിൻ്റെ പ്രശ്നം വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒച്ച കൂടുതലായിട്ട് കേൾക്കുമോ അല്ലെങ്കിൽ സൗണ്ട് കുറച്ചധികമായിട്ടു വന്നാൽ തന്നെയും ഇതിനകത്തേക്ക് സൗണ്ടിൻറ്റൊരു വേരിയേഷനിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എപ്പോഴും അപ്പം സൗണ്ടിൽ ഒരു ഓഡിയോയിലൊരു പ്രശ്നം അല്ലാതെ വീഡിയോ കോളിലെല്ലാം വീഡിയോ ക്ലിയറാണ് വീഡിയോ കോളിലാണെങ്കിലും കോൾ ക്ലിയറാണ് വീഡിയോ കോളിനകത്തെ ഓഡിയോ ഒക്കെ ക്ലിയറായിരിക്കും പക്ഷേ ഓഡിയോ കോളിൽ മാത്രമായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുക അത് മാത്രമാണ് എനിക്കതിൽ ഇഷ്ടക്കേടായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കതിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്